എടീ ആശേ എനിക്ക് ഒരു വിവരം പറയാനായിട്ട് ഞാൻ വിളിച്ചതായിരുന്നെ ഞങ്ങളുടെ ഇവിടെ കുടുംബയോഗം വരുന്ന ഞായറാഴ്ച്ച പള്ളിയിലെ അപ്പോൾ അത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാന് നടക്കുന്നത് അന്നേരം എനിക്ക് ഒരമ്പത് പേർക്കുള്ള ഫുഡ് കൊടുക്കണം അപ്പോൾ അത് എവിടുന്നാണ് നീ ഏതോ പോകാറില്ലെ ഞാൻ പോയി അങ്ങനെ അധികം പോയിട്ടില്ല ഒന്നോ രണ്ടോ വട്ടമേ ഇവിടെ അടുത്ത് നിന്നൊക്കെ ചെയ്തിട്ടുള്ളൂ സ്വിഗ്ഗി വഴിയൊക്കെ അപ്പം എനിക്ക് ബീരിയാണിയോ ഇങ്ങനെ എന്താണന്ന് വെച്ചാൽ വൈകിട്ട് കൊടുക്കത്തക്ക എന്തെങ്കിലും മതി ഇച്ചിരി നന്നായിട്ട് ആൾക്കാർക്ക് കൊടുക്കാനായിട്ടുള്ളതാണ് ബിരിയാണിയാണെങ്കിൽ നല്ലത് ഇപ്പോൾ നിങ്ങളുടെ അവിടെ ഇപ്പോൾ സാധാരണ പോകാറുള്ളത് കൊണ്ട് അവിടുത്തെ ഫുഡ്ഡൊക്കെ എങ്ങനെ ഉണ്ട് അത് നല്ല സ്വാദുള്ളതൊക്കെ ആണോ പല ടൈപ് കിട്ടുമോ നമുക്ക് ഏതൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ രുചികളും കാര്യങ്ങളും അത് അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒന്ന് നിനക്കറിയാമെങ്കിൽ ഒന്ന് പറയണം എന്നിട്ട് എനിക്കത് ഓർഡർ ചെയ്യാനായിട്ടായിരുന്നു ഓർഡർ ചെയ്ത് വരുന്ന ഞായാറാഴ്ചത്തേക്ക് ഇവിടെ കൊടുക്കാനാണ് അപ്പം അതൊ വേറെ എവിടേലും നമ്മള് നിനക്കറിയാവുന്ന വേറേതെങ്കിലും റെസ്റ്റോറൻറ്റുണ്ടോ എവിടുത്തെ ഫുഡാണ് കുറച്ചും കൂടെ നല്ലത് ഏറ്റവും നല്ലതായിരിക്കണം നമുക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ പള്ളിയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് അച്ഛനമാരൊക്കെ കാണും അപ്പം ഏറ്റവും നല്ല രീതിയിൽ അത് കൊടുത്താലെ നമുക്കതിൻ്റെ ഒരു വില കിട്ടതുള്ളു അപ്പം നല്ല ഫുഡ് ഏതാണെന്നും അത് എങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ആണ് നമുക്കറിയേണ്ടത് അപ്പോൾ അതവരിവടെ എത്തിക്കുമല്ലൊ അല്ലേ നമ്മള് ഓർഡർ ചെയ്താല് അപ്പോൾ അതിൻ്റെ ഒരു വിവരം പറയനായിട്ടാണ് ഞാൻ വിളിച്ചത് അതിൻ്റെ നല്ല നല്ലതായിരിക്കണം നമുക്കൊന്നിനും പുറകോട്ട് പോകരുത് നല്ല ടൈപ് ഫുഡായിരിക്കണം കിട്ടുന്നത് കേട്ടോ അതൊന്ന് അറിയാൻ വിളിച്ചതാണ്